ഇത് അന്നപൂർണ്ണ ഹോട്ടൽ അല്ലേ ആ എനിക്ക് ഒരു ഫുഡ്ഡും ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് വേണ്ടുന്ന ഫുഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാനും അതിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഒരു ഫൈവ് ഹണ്ട്രഡ് ഒരു ബർത്ത് ഡേ ഫംഗ്ഷൻ ആണ് ആ നെക്സ്റ്റ് വീക്ക് ആണ് നെക്സ്റ്റ് വീക്ക് ആണ് ആ എനിക്ക് ബിരിയാണി അങ്ങനെ ഐറ്റംസ് ആണ് വേണ്ടത് അതെ അറിയാം ആ അങ്ങനെ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ റേറ്റും കാര്യങ്ങളൊക്കെ വരിക സാധാ ഫുഡിന് ആണെങ്കിൽ എത്രയോ അത് പോലെ ബിരിയാണി ബിരിയാണി ആണെങ്കിൽ എനിക്ക് ഐസ് ക്രീം വേണം അതിൻ്റെ കൂടെ പായസം വേണം പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഐറ്റം അതായത് ഒന്നുകിൽ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ കബാബോ അങ്ങനെ ആയിട്ടുള്ളെ എന്തെങ്കിലും ഐറ്റംസ് വേണം ആ അപ്പോൾ ഓക്കെ ഓക്കെ അത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്

ഓക്കെ അതിൻ്റെകൂടെ പായസവും കൂടി ഉണ്ടാവും അല്ലേ അതെ അതെ ഓക്കെ ഓക്കെ ഓക്കെ അതുകൂടാതെ നിങ്ങൾ കേക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ എനിക്ക് അങ്ങനെ ആണെങ്കിൽ കേക്കും കൂടി അതിൻ്റെ കൂടെ കിട്ടിയാൽ നന്നായിരുന്നു എന്നാൽപ്പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ഓർഡറ് കൊടുക്കേണ്ടല്ലോ എല്ലാം കൂടി നിങ്ങളെ സെറ്റിൽതന്നെ ആവില്ലേ

ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ അത് നിങ്ങളെ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് വരുന്നത് ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ നാളെ ഹസ്ബൻ്റിനേയും കൂട്ടി അങ്ങോട്ടേക്ക് വരാം ആ നമ്മൾക്ക് നേരിട്ട് സംസാരിക്കാം ആ ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ ഫുഡിനെ പറ്റിയിട്ട് നല്ല ഒപ്പീനിയനാണ് കിട്ടിയത് ആ ഓക്കെ ആണ് ആ ഓക്കെ ഞാൻ എന്നാൽ ഹസ്ബൻ്റിനെയും കൂട്ടി നാളെ ഉച്ചക്ക് ശേഷം അങ്ങോട്ടേയ്ക്ക് വരാം എന്നിട്ട് നമ്മൾക്ക് നേരിട്ട് സംസാരിക്കാം ആ അപ്പോൾ നിങ്ങൾ ഏതാണ് ഫുഡ്ഡ് ബിരിയാണി ആണോ അല്ലെങ്കിൽ സാധാ ഫുഡ്ഡ് മതിയോ എന്ന് ഉള്ളത് നമ്മളൊന്ന് രണ്ടാളും ഡിസ്കസ് ചെയ്തതിന് ശേഷം നാളെ വന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം അന്നേരം നിങ്ങൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന് ഓക്കെ ഓക്കെ നാളെ നിങ്ങൾ അവിടെ ഉണ്ടാവില്ലേ ആ എന്നാൽ ശരി ഓക്കെ